ഇന്ത്യൻ ഐഡൽ പോലുള്ള സംഗീത റിയാലിറ്റി ഷോ ഒക്കെ കാണാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ കാണാറുണ്ട് മലയാളത്തിലുള്ള സരിഗമപാ അങ്ങനത്തെ റിയാലിറ്റി ഷോ പഴയ പണ്ട് ഞാൻ ചെറുതാവുമ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ എന്നു പറഞ്ഞ ഒരു പരുപാടി ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ അതു ഭയങ്കര ഹിറ്റ് പരിപാടിയായിരുന്നു അപ്പോൾ അതൊക്കെ കാണാറുണ്ടായിരുന്നു അതിൽ എനിക്ക് ശ്രീജിത്ത് എന്നു പറഞ്ഞ ഒരു സരിഗമപായിലെ ഒരു റിയാലിറ്റി ഷോയിലെ ഏകദേശം എനിക്ക് തോന്നുന്നു തേർഡ് ഒക്കെ കിട്ടിയ ഒരു ഏട്ടൻ ആയിരുന്നു അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്നു വച്ചാൽ അദ്ദേഹം വെണ്ണിലവെ വെണ്ണിലവെ എന്നു പറഞ്ഞൊരു പാട്ടൊക്കെ തമിഴിലൊരു പാട്ട് പ്രഭുദേവയുടെ ഒരു പാട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ടൊക്കെ നല്ല അടിപൊളി കാജലും പ്രഭുദേവയും അങ്ങനെ ഒരു പാട്ട് ഭയങ്കര ഫീലൊക്കെ ആയിട്ടാണ് പാടിയത് നമുക്ക് ആ ഒരു പാട്ടിലേക്ക് അതിൻ്റെ അലിഞ്ഞു പോകുന്ന രീതിയിൽ പാടിയ ഒരു വ്യക്തിയാണ് ശ്രീജിഷ് ശ്രീജിത്ത് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കു പങ്കെടുക്കാറില്ല കണ്ടിട്ട് നമുക്ക് കുറേ അറിവുകൾ നേടിയിട്ടുണ്ട് ശ്രുതിയെങ്ങനെയാണ് നമ്മൾ ഏതോ ഒരു പിച്ച് ടെമ്പോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശാസ്ത്രീയ പരമായിട്ടുള കാര്യങ്ങളും സംഗീത പരമായിട്ടുള്ള കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടിയും കൂടുതൽ വ്യക്തതയോടെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലം റിയാലിറ്റി ഷോ പോലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ട്യൂഷൻ പോലെയുള്ള കാര്യങ്ങളിൽ പോകണം അപ്പോൾ അതു കുറേ നമ്മളെ പാട്ടു പാടാനും പാട്ടിനെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ചും ഒക്കെ നമ്മൾ കുറച്ചുകൂടിയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകൂടിയും അറിവ് നേടാൻ റിയാലിറ്റി ഷോ കൂടുതലും സഹായിച്ചിട്ടുണ്ട് അത് ബാക്കി ഉള്ളവർക്കും പിന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ആണെന്നു വച്ചാൽ മീതി ഈ പാട്ട് ഇങ്ങനത്തെ രീതിയിലാണ് പാടേണ്ടത് ഈ സ്ഥലത്ത് ഇങ്ങനെയാണ് പാട്ട് ശബ്ദം ഇങ്ങനെ താഴ്ത്തണം താഴ്ത്തണം പൊക്കണം അതേപോലത്തെ ടെമ്പോ കൂട്ടണം കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും അറിയാൻ പറ്റുക ഇങ്ങനത്തെ റിയാലിറ്റി ഷോ പോലത്തെ സംഭവങ്ങളിലാണ് അപ്പോൾ റിയാലിറ്റി ഷോ കുട്ടികളെ കഴിവിനെ ഇങ്ങനത്തെ സംഗീത കഴിവിനെയൊക്കെ കൂടുതലും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്